എൻ്റെ ജീവിതത്തിലെ മംഗളകരമായ സംഭവം സംഭവമെന്ന് പറയുന്നത് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാവുക അല്ലെങ്കിൽ ഞാൻ അത്ര മാത്രം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെനിക്ക് കിട്ടുക അതാണൊരു മംഗളകരമായൊരു ഇതെന്ന് പറയുന്നത് അല്ലാതെ ചുമ്മാ കിട്ടുക എന്നല്ല ബട്ട് അത്യാവശ്യമായ സമയത്ത് അത് കിട്ടുക അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും അവർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം അത് എല്ലാർക്കും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു എനർജിയാണ് കൊടുക്കുന്നത് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു സംഭവം തുടങ്ങുന്ന രീതി അങ്ങനെ അവക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല കാര്യം നടക്കും എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും അത് ബാധിക്കും അതുപോലെ തന്നെ എനിക്ക് ഒരു നന്മയുണ്ടായാൽ അതും എൻ്റെ കുടുംബത്തെ ആയാലും എൻ്റെ ഫ്രണ്ട്സിനെ ആയാലും അത് ബാധിക്കും അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു മംഗളകരമായ ഒരു സംഭവം നടക്കുക എന്നേ ഞാൻ പറയത്തുള്ളു സംഭവം നമുക്ക് മംഗളകരമെന്ന് ആയിരുന്നാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമായ ഒരു കാര്യമാണെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു സംഭവമെന്ന് പറയുന്നത് അത് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും എൻഡ് ചെയ്യാതിരിക്കുന്നത് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വച്ചാൽ അതെപ്പോഴും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യണം മറ്റുള്ളവർക്ക് ഒരു കൈതാങ്ങ് ആകണം മറ്റുള്ളവരെ അത് സഹായകമാകണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു മംഗളകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെയാകണം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ മംഗളകരമായ സംഭവം തുടങ്ങേണ്ടത് എന്ന് വച്ചാൽ മംഗളകരം അതൊരിക്കലും ഒരു പേഴ്സണൽ ഒരാളിൽ നിൽക്കുന്നതല്ല മംഗളകരമെന്ന് പറയുന്നത് ഒരു ഒരു ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വേണ്ടവർക്ക് നിൽക്കുന്നത് വേണ്ടപ്പെട്ടവർക്ക് അവരെയും കൂടെ ഈ മംഗളകരമായ സംഭവം എന്തുവാ ബാധിക്കണം അവർക്കും അതിൻ്റെ ഒരു പങ്ക് ലഭിക്കണം അപ്പോഴാണ് ഒരു കാര്യത്തിന് മംഗളകരമെന്ന് പറയാൻ പറ്റത്തുള്ളു അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മംഗളകരം എപ്പോഴും പലരേയും അത് ഇൻഫ്ലൂവൻസ് ചെയ്യണം